നമസ്കാരം ചേച്ചി മൂന്നാറിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ് കുറെ സ്ഥലമൊക്കെ കാണാൻ ഉണ്ടോ ഞങ്ങൾ മൂന്നാർ തേക്കടി ഇടുക്കിയൊക്കെ ഒന്നു കണ്ട് ആസ്വദിക്കാൻ വന്നതാണ് ഞങ്ങളെയൊന്ന് സഹായിക്കുമോ അതെ എത്ര ദിവസം കൊണ്ട് മൂന്നാർ കണ്ട് തീർക്കാനാകും അതെ അതെ ഇല്ലില്ല കുഴപ്പമില്ല മൂന്നാറിൽ താമസിക്കാൻ ഒരു ദിവസം റൂമിനൊക്കെ എത്ര വില വരും ഓക്കെ ചേച്ചി മൂന്നാറിൽ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അതെ മൂന്നാറിൽ ഒരു കുടുംബത്തിന് എത്ര പൈസ വരും ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ഓക്കെ മ് ഓക്കെ ചേച്ചി നോക്കിയിട്ട് വരാം

ഓക്കെ കാണാം